കർഷക ആത്മഹത്യ ഒഴിവാക്കാനായി ഏതൊക്കെ ഹെൽപ്ലൈനുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അഥവാ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ അതുപോലെ സാമൂഹിക സംഘടനകൾ തുടങ്ങിയവ വഴി ഏത് ഹെൽപ്ലൈൻ നമ്പറുകൾ ലഭ്യമാണ് എന്ന് അന്വേഷിക്കുന്നു ഇതിൻ്റെ ഭാഗമാകുന്ന സേവനങ്ങളിൽ മാനസിക ആരോഗ്യസഹായം അതുപോലെത്തന്നെ സാമ്പത്തിക സഹായം കുടിയൊഴിപ്പിക്കൽ തടയൽ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് അതുപോലെത്തന്നെ നിങ്ങളുടെ പ്രദേശത്ത് കൗൺസിലിംഗ് സെൻററുകുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കർഷകർക്ക് ആവശ്യമായ അതുപോലെത്തന്നെ മാനസിക ആരോഗ്യസഹായം നൽകുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങളുണ്ടോ എന്നതാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതുപോലെത്തന്നെ അത് കർഷകരുടെ കുടുംബത്തിന് ഇതെത്ര ബുദ്ധിമുട്ടാണ് എന്ന് ചോദിച്ചാൽ അതായത് ആത്മഹത്യ എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല അവരുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ എത്ര വലിയ ആകാതം വരുത്തുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അഥവാ ചുരുക്കി പറഞ്ഞാൽ കർഷക ആത്മഹത്യ ഇന്ത്യയിലും കേരളത്തിലുമുള്ള അധീവ ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നാണ് സാമ്പത്തികമോ സാംസ്കാരികമോ മനസ്സിനുള്ള സമ്മർദ്ദമോ കാരണം കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത് സമൂഹമായി നമുക്ക് ഗൗരവപൂർവം ആലോചിക്കേണ്ട വിഷയമാണ് ഇത് കുടുംബങ്ങളെ പൂർണ്ണമായി തകർക്കുന്നതാണ് ഒന്നാമതായി കർഷക ആത്മഹത്യ ഒഴിവാക്കാനുള്ള ഹെൽപ്പ്ലൈൻ നമ്പറുകൾ എന്ന് ചോദിച്ചാൽ ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് ഇന്ത്യയിൽ കാർഷിക വകുപ്പിൻ്റെ കീഴിലുള്ള ദേശീയ കർഷക സഹായ ഹെൽപ്ലൈൻ അതുപോലെത്തന്നെ കർഷകർക്ക് വിവര സഹായം ഉപദേശങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അതുപോലെ കർഷക കല്യാൺ കോൾ സെൻ്റർ അത് നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് എന്ന ട്രോൾ ഫ്രീ നമ്പറിൽ വിളക്കുമ്പോൾ കാർഷിക വിദഗ്തനുമായി നേരിട്ട് സംസാരിക്കാനും സാധിക്കും അതുപോലെത്തന്നെ ദിശ ഹെൽപ്ലൈൻ നമ്പറായ ഒന്ന് പൂജ്യം അഞ്ച് ആറ് അതല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്ന കേരള സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മാനസിക ആരോഗ്യ സേവനത്തിൽ സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് രണ്ടാമതായി കൗൺസിലിംഗ് സെൻ്ററുകൾ നിർഭയ ആശ്വാസം ശാന്തനം പോലുള്ള പൊതു ജനങ്ങൾക്കായുള്ള കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ പല ജില്ലകളിലുമുണ്ട് മുൻഗണന പട്ടികയിലുള്ള ജില്ലകളിൽ കാർഷിക കൗൺസിലിംഗ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെത്തന്നെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതല്ലെങ്കിൽ അങ്കണവാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി എത്താവുന്ന സൗജന്യ കൗൺസിൽ സേവനങ്ങൾ അതുപോലെത്തന്നെ പ്രൈവറ്റ് സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ക്ലിനിക്കുകൾ പ്രത്യേകിച്ച് വയനാട് പാലക്കാട് പോലുള്ള ആത്മഹത്യ സംഭാവനകൾ കൂടുതലുള്ള ജില്ലകളിൽനിന്ന് ഉള്ള പൊതുവായി കാണപ്പെടുന്നത് അതുപോലെത്തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആത്മഹത്യക്ക് ശേഷം കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉറച്ച നില തകരുന്നുണ്ട് പലപ്പോഴും കുടുംബം കടത്തിലാകുന്നു എന്നതും മറ്റൊരു കാരണം കൂടിയാണ് അതുപോലെത്തന്നെ സാമൂഹികമായി അവഹേളനം ഒറ്റപ്പെടലുമാണ് അനുഭവപ്പെടുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ കർഷക ആത്മഹത്യ ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ദുഃഖമാണ് അതിനാൽ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം സമൂഹം തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും കൈപിടിക്കുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്